ഞാനായത് കുട്ടനാട്ടുകാരുടെ ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാല് വെള്ളപ്പൊക്കമാണ് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പോലും പറയാന് പറ്റത്തില്ല വെള്ളത്തിന്റെ കാര്യം ഇപ്പം തന്നെ ഞങ്ങൾക്ക് വെള്ളത്തിനകത്ത് കണ്ടത്തിൽനിന്ന് വെള്ളം വരാന് തുടങ്ങി ഇപ്പം കുറച്ചൊക്കെ മുറ്റത്തോട്ട് ഒക്കെയായി തുടങ്ങിയിരിക്കുന്നു അത് കഴിയുമ്പം നമുക്ക് മൃഗങ്ങളെ കൊണ്ട് അതായത് കോഴികൾ പശുവെ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അത്ങ്ങൾക്ക് പശുവൊക്കെ വെള്ളം വന്നുകഴിഞ്ഞാൽ അത്ങ്ങൾക്ക് തണുപ്പൊന്നും ഒത്തിരി പിടിക്കാന് പറ്റത്തില്ല പിന്നെ നമ്മൾ തട്ട് അടിക്കുക അതായത് പലക വെച്ച് പൊക്കിവെച്ചിട്ട് അങ്ങ് അതുങ്ങടെ പുറത്താണ് നിൽക്കുന്നത് നമുക്ക് വെള്ളത്തിന്റെ ഇതറിയത്തില്ല തല്ക്കാലം നമ്മളങ്ങനെ ചെയ്യും പിന്നെ അത് കഴിയുമ്പം വെള്ളത്തിനനുസരിച്ചനുസരിച്ച് നമ്മള്ക്ക് എന്താ പറയുക ഒരു ഇച്ചിരി കഷ്ടപ്പാടാ ഈ മൃഗങ്ങളെ കൊണ്ട് അങ്ങ് അതുങ്ങൾ എത്രത്തോളോം തട്ടടിച്ച് പൊക്കിയിട്ട് വേണം അതുങ്ങൾ അവിടെ നിര്ത്താന് പിന്നെ പുല്ല്കള്ക്കെല്ലാം ക്ഷാമം വരും വെള്ളം പൊങ്ങുമ്പം നമുക്ക് പുല്ല് കിട്ടാന് പാടാണ് പിന്നെ കച്ചി അതായത് കച്ചിയുള്ളൂ നമുക്ക് ആശ്രയം അതും നമക്ക് സ്ഥിരം കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ആവശ്യത്തിന് നമുക്ക് അത് കാണത്തില്ലാതെ വരും പിന്നെ നമ്മൾ ഇങ്ങനെ എന്താപറയുക വെള്ളം പൊങ്ങിയാലും എവിടെയെങ്കിലും ഒക്കെ പോയി വള്ളത്തിൽ കയറി തുഴഞ്ഞ് പിടിച്ച് കടയിലിനകത്തെക്കെ പോയി പുല്ലൊക്കെ ചെത്തിക്കൊണ്ട് വന്ന് വേണം നമ്മൾ അത്ങ്ങള്ക്ക് തീറ്റ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അത് നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മറ്റേതെന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലാത്തപ്പം നമുക്ക് എവിടെയെങ്കിലും അഴിച്ച് കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ അത്ങ്ങടെ ആവിശ്യത്തിന് നമുക്ക് വയറ് നിറയും ഇപ്പം നമുക്ക് വെള്ളം പൊങ്ങിക്കഴിയുമ്പം പുല്ല് കിട്ടാന് ക്ഷാമം വരും കച്ചിക്ക് ക്ഷാമം വരും എല്ലാംകൊണ്ടും നമുക്ക് ഒത്തിരിയും ദുരിതമാണ് അത്ങ്ങളെയുംകൊണ്ട് പിന്നെ ഒത്തിരിയും കഷ്ടപ്പാട് പെട്ടുവേണം നമ്മൾ അത്ങ്ങളെയൊക്കെ വളര്ത്തിയങ് എടുക്കാനായിട്ട് അങ്ങ് പിന്നെ നമുക്ക് എല്ലാംകൊണ്ടും പാടാണ് പിന്നെ വെള്ളംപൊങ്ങി കഴിയുമ്പം നമ്മൾക്ക് നമുക്കും മനുഷ്യര്ക്കും ബുദ്ധിമുട്ടാ കൂടുതലും അങ്ങനെ എത്രത്തോളം വെള്ളം പൊങ്ങുന്നു എങ്ങനെയായി തീരുമെന്നൊന്നും നമുക്ക് പറയാന് പറ്റത്തില്ല അതുങ്ങളെക്കൊണ്ട് പക്ഷെ അത്ങ്ങടെ കാര്യം കഷ്ടമാണ് നമ്മൾ നമ്മുടെ കാര്യവും കഷ്ടമാണ് എല്ലാംകൊണ്ടും നമുക്ക് മൃഗങ്ങളെക്കൊണ്ട് എന്താപറയുക നമുക്ക് ഒത്തിരിയങ്ങ് സങ്കടം വരും അത്ങ്ങളെ വളത്തി ഒരു കര പറ്റിക്കാന് എന്ന് നോക്കുമ്പം അത്ങ്ങളെക്കൊണ്ട് ഈ വെള്ളം ഒക്കെ വരുമ്പം നമ്മൾ ഒത്തിരി കിടന്നങ്ങ് ബന്ധപ്പെടും എന്നു പറഞ്ഞാൽ കഷ്ടപ്പെടും അങ്ങ് അതായത് പശു ഒക്കെ ആണെങ്കിലും മനുഷ്യരാണെങ്കിലും എല്ലാം ഒരുപോലെയെക്കെത്തന്നെയങ്ങ് വെള്ളം വരുമ്പം നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയാണ് കുഞ്ഞുങ്ങളുണ്ടെങ്കില് പിന്നെ പറയുകയും വേണ്ട അത്ങ്ങളുടെ കാര്യം നോക്കണം മൃഗങ്ങളുടെ കാര്യങ്ങൾ നോക്കണം വള്ളത്തിനകത്ത് എത്രത്തോളം പൊക്കി പൊക്കി നിര്ത്തിയാൽ അത്ങ്ങൾ ഒരു ഇത് ഇതാക്കാന് പറ്റുന്നത് പിന്നെ നമുക്ക് പശു പാൽ തരുന്നത് ആണെങ്കി അത്ങ്ങളെ ഇച്ചിരി കഷ്ടപ്പെട്ട് വേണം മണ്ടയ്ക്ക് വലിഞ്ഞ് കയറി പാൽ എടുക്കാനായിട്ട് പിന്നെ അതുപോണക്ക് വള്ളത്തിൽക്കയറി വേണം നമുക്ക് പാൽ കൊണ്ട് തരാനായിട്ട് അങ്ങനെയെക്കെ ഒത്തിരിയും കഷ്ടപ്പാടാണ് നമുക്ക് മൃഗങ്ങളെക്കൊണ്ട് ഈ വെള്ളം വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അങ്ങ് അല്ലാത്തപ്പം നമുക്ക് കുഴപ്പമൊന്നും ഇല്ല സൂപ്പർ ആയിട്ട് നമുക്ക് അത്ങ്ങളുടെ ഇതാക്കാം ഏത് മൃഗങ്ങളാണെങ്കിലും എല്ലാം വെള്ളം ഇല്ലെങ്കിൽ നമുക്കെല്ലാം ഓക്കെ വെള്ളമാണെങ്കില് എല്ലാം കഷ്ടപ്പാടാണ് നമുക്ക് പക്ഷെ എന്നാലും നല്ലതാണ്